ന്യൂലാൻഡ് ബേക്കറി അല്ലേ ആ എനിക്ക് ഒരു കേക്ക് വേണമായിരുന്നല്ലോ ഏതൊക്കെ കേക്കുണ്ട് ബേക്കറിയിൽ ആ എനിക്ക് വാനില മതി കേട്ടോ വാനില മതി വാനില എനിക്ക് ഒരു ബർത്ത്ഡേയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ അതെങ്ങനെ അതിൻ്റെ അതിൻ്റെ വില എങ്ങനെയാണ് വില എങ്ങനെയാണ് എനിക്ക് ഒരു രണ്ട് കിലോയുടെ വേണം രണ്ട് കിലോ ആ എനിക്ക് ഇന്ന് എത്രയാണ് ഒമ്പത് തീയ്യതി എനിക്ക് ഒരു പത്താം പന്ത്രണ്ടാം തീയ്യതിയേക്ക് വേണം എനിക്ക് ഒരു മൂന്ന് മണിയാവുമ്പം കിട്ടിയിരിക്കണം ഇല്ല ഇല്ല എനിക്ക് കൊണ്ടുത്തരണം ആ വേണം ഞങ്ങൾ എസ്എൻ കടവെന്ന് പറയും ആലപ്പുഴ ഇവിടെ ഹരിപ്പാട് കണ്ണുകാലിപ്പാലം ആ ആ മൈത്രി ജംഗ്ഷനിൽ വരിക മൈത്രി ജംഗ്ഷനിൽ നിന്ന് നേരെ എസ്എൻ കടവിലോട്ട് ഒരു റോഡുണ്ട് അവിടെ വരുമ്പോൾ ജങ്കാറ് കടവാണ് ആ ജങ്കാറേ കൊടുത്താൽ മതി ഞാൻ വന്നു വാങ്ങിച്ചോളാം അത് ഞാൻ വരുമ്പം തന്നാൽ പോരെ അതോ ഗൂഗിൾ പേ ചെയ്യണോ ആ ഓക്കെ അതിൻ്റെ ഓക്കെ ചെയ്യാം എത്ര രൂപയാണ് ഒന്നൂടെ ഒന്ന് പറയാമോ ആയിരത്തി എണ്ണൂറ് ഓക്കെ ഓക്കെ ആ കേട്ടോ ആ അപ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ അല്ലേ അപ്പം നല്ല സാധനമാണ് പൈസ ആയിരത്തി എത്രയാ പറഞ്ഞത് എണ്ണൂറോ ആയിരത്തി എണ്ണൂറ് ഇച്ചിരി കൂടുതലാണല്ലോ ഡെലിവറി ചാർജ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഇത്ര ഇത്രയും ചാർജാണോ അത് എന്തൊരു പറച്ചിലാണ് മാഡം രണ്ട് കിലോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഒക്കുന്നത് ഞൾ മറ്റ് ബേക്കറിയിൽ നിന്നൊക്കെ മറ്റ് ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെ അല്ലല്ലോ ഞങ്ങൾക്ക് അവര് ചാർജെടുക്കുമെങ്കിലും ഇത്രയൊന്നും എടുക്കാറില്ലല്ലോ ഞങ്ങൾ ഇപ്പോൾ പല ബേക്കറിയിൽ നിന്ന് ഞങ്ങൾ മേടിക്കാറുണ്ട് പിന്നെ ന്യൂലാൻഡ് നല്ലതാണെന്ന് ഇങ്ങനെ ഞങ്ങൾ അറിഞ്ഞത് കൊണ്ട് നിങ്ങളുടെ ബേക്കറിയിൽ ഓഡർ ചെയ്തതാണ് നിങ്ങൾ ഇങ്ങന അന്വേഷിച്ച ശേഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓഡർ ചെയ്യുമ്പോൾ നമ്മൾ അത്ര ചാർജൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഇച്ചിരി ഓവറല്ലേ എന്നെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അതൊന്നും പറഞ്ഞിട്ട് കാര്യം ഇല്ല മാഡം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ അത് നമ്മൾ അങ്ങനെ അതൊക്കെ അത്രയും ചാർജൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഇച്ചിരി കൂടുതലാണെന്നാണ് എൻ്റെ ഒരു ആ ആ ഓക്കെ ഓക്കെ ഇരുന്നൂറ് രൂവ കുറച്ച് എന്നാൽ താ എന്നാൽ തരുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം അപ്പോൾ സാധനം പന്ത്രണ്ടാം തീയ്യതി മൂന്ന് മണിക്ക് എസ്എൻ കടവിലെത്തിക്കണം കേട്ടോ ഞാൻ ഗൂഗിൾ ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം ശരി ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ